കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മൊബൈൽ ഫോൺ കുട്ടികളുടെ പഠനത്തിന് ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ട് നമുക്ക് കോവിഡ് കാലത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ സിറ്റ്ഷവേഷനിൽ കുട്ടികളൊടെ പഠനത്തിന് അത് വളരെ ബുദ്ധിമുട്ടും അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോവാൻ സാധിക്കാത്തൊരവസ്ഥയും വന്നതിന് ശേ വന്നപ്പോഴാണ് ഗവൺമെൻറ്റും അധ്യാപകരും കൂടി ചെയ്ത ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്താതെ ഇരി തടസ്സപ്പെടാതെ ഇരിക്കാൻ ചെയ്ത ഒരു ഓൺലൈൻ ക്ലാസ് ആണ് നടന്നിരുന്നത് അത് മൊബൈൽ ഫോണിലൂടെ ആണ് നടത്തിയിരുന്നത് അത് കുട്ടികളുടെ പഠനത്തെ ഒരുപാട് സഹായിക്കുകയും അവർക്ക് മുടങ്ങാതെ ക്ലാസ് ക്ലാസ്സ് കാണാനും അറിയാനും പഠിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അതിലൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ അവർക്ക് ക്ലാസുകൾ മുടങ്ങാതെയും അവരുടെ പാഠങ്ങൾ പൂർത്തീകരിക്കുകയും അവർക്കത് മനസിലാക്കുകയും പരീക്ഷക്ക് വേണ്ടിയുള്ള തയ്യാറെപ്പ് തയ്യാറെടുപ്പ് അതിലൂടെ നടത്താനുമുള്ള എല്ലാം അതിലൂടെ കിട്ടിയിട്ടിയുണ്ട് കോവിഡ് അതുകൊണ്ട് തന്നെ കോവിഡ് വരാനുള്ള അവസ്ഥയും വളരെ കുറവായിരുന്നു അതൊക്കെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് വെച്ചാൽ ഇതുകൊണ്ട് കുട്ടികളുടെ കണ്ണിന് വളരെ അധികം ദോഷം വന്നിട്ടുണ്ട് ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്നതും അത് പിന്നീട് പിന്നെയും പിന്നെയും ഉ ഉപയോഗിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയും കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട് അത് ഒരു ദോഷമായിട്ട് ഇപ്പൊഴും കുട്ടികൾ ഫോൺ എന്ന് പറയുന്നത് അത് വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ് കോവിഡ് കാലത്ത് അത് വളരെ ഉപ ഉപയോഗപ്പെട്ടിരുന്നെങ്കിലും ഇന്നത് ഓൺലൈൻ ക്ലാസ് ഇല്ലാതെയും അത് കുട്ടികൾക്ക് ഫോൺ വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ദോഷമായിട്ട് കാണുന്നുണ്ട്